ഞാൻ തന്നിരിക്കുന്ന ഗാനാലപനത്തിന് തന്നിരിക്കുന്ന പാട്ട് ഒത്തിരിപ്പ്രാവശ്യം പാടി നോക്കും പാടി നോക്കീട്ട് പിന്നെ നമ്മൾ ഇത് പോലെ ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം അതിങ്ങനെ മൂ മൂളിപ്പാട്ട് പോലിങ്ങനെ പാടിക്കോണ്ട് നടക്കും എന്നിട്ട് ലാസ്റ്റ് ഞാനിങ്ങനെത് പാടിയെല്ലാ എനിക്കൊരുമാതിരി കോൺഫിഡൻസായിക്കഴിയുമ്പോള് ഈ വീട്ടിലുള്ളവരോട് പാടി കേള്പ്പിക്കും പിന്നെ അവരുടെ അഭിപ്രായം ചോദിക്കും പിന്നെ ഞാന് സ്വരം നന്നായിട്ട് വരാനായിട്ടും ഈ ഉള്ള എപ്പോഴും തണുത്ത ഒരു സാധനവും കഴിക്കത്തില്ല എപ്പോഴും ചെറിയ ചൂടോട് കൂടി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും അധികം ശബ്ദത്തിൽ അങ്ങനെ നമ്മുടെ തൊണ്ടയ്ക്ക് കുഴപ്പം വരുന്ന രീതിയിൽ ശബ്ദമൊന്നും വഴക്കുണ്ടാക്ക്വോ അരിശപ്പെടോ അങ്ങനെ ഉറക്കെ ഒന്നും ശബ്ദിക്കാതെ എപ്പോഴും ആ സൗണ്ടിനെ പ്രൊട്ടക്റ്റെയ്ത് അപ്പോള് സൗണ്ട് ക്ലിയറാവാനുള്ള എല്ലാ മാർഗങ്ങളും നോക്കും പാട്ട് പാടി അവസാനം എനിക്കു ഒരു ആ കുഴപ്പമില്ല എന്ന് തോന്നി കഴിയുമ്പോഴാണ് പിന്നെ കൂട്ടുകാരേ കൂട്ടുകാരെടുത്ത് പാടി കേപ്പിക്കും പിന്നെ രണ്ടൂന്നെസം പാട്ടിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ സമയം ആകുന്ന ആയി അടുത്ത വരുമ്പോഴത്തേക്ക് രണ്ടൂന്നെസം റെസ്റ്റ് കൊടുക്കും ത്രോട്ടിന് റെസ്റ്റ് കൊടുക്കും അങ്ങനെ അങ്ങനെയാണ് ഞാൻ പാടാൻ ആയിട്ട് ഒരുങ്ങുന്നത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റൊരു സ്വഭാവമാണ് ചെറിയ ചൂട് വെള്ളം കുടിക്കുക തണുത്ത വെള്ളം തണുത്ത ഐസ് ക്രീം അതുപോലുള്ള ഒര് കാ ഭക്ഷണപദാർത്ഥങ്ങളും തണുത്ത ഒരു സാധനവും ഞാൻ കഴിക്കാറില്ല എൻ്റെ സൗണ്ടിനെ ഞാനങ്ങനെ എപ്പൊഴും പ്രൊട്ടെക്റ്റെയ്യും തണുത്ത കഴിച്ച് കഴിഞ്ഞാല് ത്രോട്ടിന് ഭയങ്കര ഇൻഫെക്ഷനാവും പിന്നെ സൗണ്ട് വേറെ മാറിപ്പോവും അങ്ങനൊക്കെ പ്രശ്നങ്ങളെനിക്ക് വരാറുണ്ട് അത് കൊണ്ട് പാ പാട്ട് റെക്കോഡെയ്യാനായിട്ട് ഒരുങ്ങുന്ന അവസരത്തില് കംപ്ലീറ്റ് ത്രോട്ടിന് റസ്റ്റും കൊടുത്ത് ഭക്ഷണസാധനങ്ങളെല്ലാം ക്രമീകരിച്ച് നന്നായി ഒരുങ്ങിയാണ് റെക്കോഡിങ്ങിന് പോണത് ഓക്കേ താങ്ക് യു